നമ്മൾ ഇന്ത്യയിൽ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നു പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ജാതിയുടേയും മതത്തിൻ്റേയും പേരിലുള്ള തമ്മിലടി ദൈവത്തിനുവേണ്ടി മനുഷ്യൻ പോരാടുകയാണ് അതുപോലെ വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ അവസ്ഥകൾ എഴുതാനോ വായിക്കാനോ അറിയാവുന്നവർ കേരളം ഇന്ത്യയിൽ വളരെ കുറവാണ് അതുപോലെ ദാരിദ്ര്യം കാശ് സമ്പത്ത് ഉള്ളവൻ്റെ കയ്യിലുണ്ട് ഇല്ലാത്തവൻ്റെ കയ്യിലില്ല ആ ഒരു സാഹചര്യമാണുള്ളത് സമ്പത്ത് സമ്പത്തിൻ്റെ ഏകീകരണം രാജ്യത്ത് സംഭവിക്കുന്നു കാശുള്ളവനുണ്ട് ഇല്ലാത്തവനില്ല പിന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ഈ നമ്മുടെ രാജ്യത്ത് ഇല്ല പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ രാജ്യങ്ങളിൽ സമ്പത്തിൻ്റെയും പിന്നെ എന്താ പറയുക സമ്പത്തും എല്ലാം കുമിഞ്ഞുകൂടുന്നു ഏകീകരിച്ചു പോകുന്നു അതുപോലെ പറയുമ്പോൾ

രാജ്യത്ത് സംജാതമാകുന്ന ആ ഒത്തിരി അറിവില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പം പ്രധാന വെല്ലുവിളിയെന്നു പറയുന്നത് ശുചിത്വമില്ലായ്മ അതുപോലെ മരണനിരക്ക് ബാലമരണം പിന്നെ അതുപോലെത്തന്നെ അക്രമങ്ങൾ രാഷ്ട്രീയം ഇവ ഈവക കാര്യങ്ങൾ ഒക്കെ നമ്മളതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് എങ്കിൽ ഞാനിവിടെ ഊന്നി ഊന്നി പറയുന്നു ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് അക്രമം അടരാടുകയാണ് പ്രത്യേകിച്ച് സി പി എം ഭരിക്കുമ്പം പിണറായി സർക്കാരിവിടെ എന്ത് ചെയ്തു ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല പിണറായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഒരു മോശപ്പെട്ട ഭരണാധികാരി എൻ്റെ ജീവിതത്തിലിതുവരെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെതന്നെ സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കാവസ്ഥയിലാണ് ഉള്ളത് മൊത്തം കട്ടുമുടിച്ച് നശിപ്പിച്ച് തേച്ചു കഴുകി വെച്ചിരിക്കുകയാണ് പിന്നെന്നാ ചെയ്യാനാണ് കോൺഗ്രസിലാണെങ്കിൽ തമ്മിലടി എല്ലാം ഒരുത്തനൊരുത്തനെ കാണാൻ പാടില്ല ആ ഒരു രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് ഈ രീതിയിലേക്ക് മുന്നോട്ടു പോയാൽ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും ഇതിനനൊക്കെ ഒരറുതി വരണ്ടേ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നല്ല ഒരു കോൺഗ്രസ്സിൽ നല്ല ഒരു നേതാവില്ല വാളെടുക്കുന്ന എല്ലാവരും വെളിച്ചപ്പാടെന്നുള്ള രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്

അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും അക്ഷരം അറിവ് ആർക്കും തന്നെ ഇല്ല അതിനൊക്കെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തരത്തിൽ വേണ്ടിവരും എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം